ഹലോ ഞാൻ കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്ത ഒരു ക്യാബിന്റെ കാര്യം അറിയിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതായത് ചില കാരണങ്ങളാൽ ഞങ്ങൾക്ക് ആ യാത്ര പോവാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് ആ ക്യാബ് ഒന്ന് റദ്ദാക്കേണ്ടി വരും അത് വന്നിട്ട് ഞങ്ങളുടെ അമ്മാവൻ ഒന്ന് ആശുപത്രിയിലായി അപ്പോളൊരു എമർജൻസി കാരണം ഞങ്ങൾക്കാ യാത്ര ഒഴിവാക്കേണ്ടി വന്നു അപ്പോൾ ഞങ്ങളാ ആ ക്യാബ് ഒന്ന് റദ്ദാക്കണം പക്ഷേ അതിനു മുമ്പായി ഞങ്ങളൊരു കഴിഞ്ഞ ആഴ്ച രണ്ടായിരം രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ റീഫണ്ടിനെ പറ്റി ഒന്ന് അറിയാനുമായിരുന്നു വന്നതുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എത്ര ദിവസത്തിനകം ആ റീഫണ്ട് കിട്ടും എന്ന് പറയാമോ പിന്നെ ഞങ്ങൾക്ക് ജീപേ ഫോൺപേ അല്ലെങ്കിൽ പേടിഎം വഴി ആ രണ്ടായിരം രൂപ കിട്ടിയാലും കൊള്ളാം പിന്നെ അത് പറ്റില്ലെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ കൈയിലുണ്ടല്ലോ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അതുവഴി റീഫണ്ട് കിട്ടിയാലും മതിയാവും